പ്രവേശന പരീക്ഷകളെക്കുറിച്ചു ഇപ്പ നീറ്റ് എക്സാം കീം എന്നിവയൊക്കെ ഉണ്ടല്ലോ എനിക്ക് അതിനെക്കുറിച്ചു കൂടുതലായിട്ട് വലിയ ഒരു പറയാനുള്ളൊരു അറിവ് ലഭിക്കുന്നില്ല എന്നലും പ്രവേശന പരീക്ഷകളൊക്കെ പ്രവേശന പരീക്ഷയോടു കൂടി ഒരു കുട്ടിയുടെ യോഗ്യതയാണ് നിർണ്ണയിക്കുന്നത് യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് മാർക്ക് ലഭ്യമാകുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോറുകൾ നേടുന്നു അപ്പം അത് അനുസരിച്ചു ഓരോരുത്തർക്കും എത്ര മാർക്ക് കരസ്ഥമാക്കി ഏത് ഗ്രേഡിൽപ്പെടുന്നു അത് അനുസരിച്ചു ഓരോ കോളേജുകളെ അവർക്ക് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യാം അത് അനുസരിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു മാർഗ നിർദ്ദേശം ലഭിക്കുകയും അത് അനുസരിച്ചു അവർക്ക് ഓരോ തലങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യുന്നു പിന്നെ പ്രവേശന പരീക്ഷ ഇല്ലാതെ ഇപ്പം ഒന്നിലോട്ടും കടക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പം പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ വളരെയേറെ കോച്ചിങ്ങിനൊക്കെ പോകുന്നു ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ കോച്ചിങ്ങിന് പോകുന്നു അതിനുമൊക്കെ ഭീമമായ ഫീസുകളൊക്കെ നൽകി ദൂരദേശങ്ങളിലൊക്കെ പോയി നല്ല ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന് വേണ്ടി തയ്യാറാക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് എക്സാം എഴുതുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നത് അപ്പ ഈ കോച്ചിങ്ങിനും കാര്യങ്ങൾകൊക്കെ പോകാത്ത കുട്ടികൾക്ക് അതിൻ്റേതായ രീതിയിൽ മാർകൊക്കെ വളരെ കുറവായിരിക്കും മാർക്ക് വളരെ കുറവായി കിട്ടുന്നവർക്ക് കോളേജ് തലങ്ങളിൽ പ്രവേശനത്തിനൊക്കെ ഒത്തിരി ഏറെ വൈകുന്നു കാരണം മാർക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് മുന്നോട്ടുള്ളവരെ ആദ്യമാദ്യമുള്ള നല്ല പ്രഗൽഭരായ കോളേജുകളിലക്ക് അഡ്മിഷൻ ലഭിക്കുന്നു മാർക്ക് കുറവ് കിട്ടുന്ന കുട്ടികൾക്ക് ഏറ്റവും പിന്നെ മോശമായത് നല്ല ഇച്ചിരി ആ ലെവല ഒരു ബെസ്റ്റ് ലെവലിൽ നിന്ന് താഴോട്ട് വന്നാൽ സാധാരണ രീതിയിലുള്ള കോളേജുകൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളു പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രം അതായത് നമുക്ക് നല്ല അറിവും ജ്ഞാനവും എല്ലാ കാര്യത്തെ കുറിച്ചുള്ള ഗ്രാഹ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ കോച്ചിങ്ങിന് പോകാം അതെങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം എത്ര സമയം കൊണ്ട് ഒരു ക്വസ്റ്റൻ്റെ ആൻസറ് ചെയ്യാം അപ്പം ഏതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും അതറിഞ്ഞുള്ള പ്രവർത്തന രീതി അനുസരിച്ച് മുന്നോട്ട് പഠിച്ചു നല്ല രീതിയിൽ എത്തപ്പെടാനും ഒക്കെ സഹായമാകും ഇപ്പോൾ പ്രവേശന പരീക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു സ്കൂൾ തലത്തിലാണെങ്കിൽ പോലും സ്കൂളുകളിൽ ചെറിയ രീതിയിൽ പിന്നെ ഇൻറർവ്യൂ പോലെ നടത്തുന്നു കുഞ്ഞു പിള്ളേർക്ക് പോലും ഇല്ലേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഒരഡ്മിഷന് വേണ്ടി അവർ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കി ആ ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിച്ചു ആൻസർ ചെയ്തു നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ ഒരു ഇതുണ്ട് അപ്പോൾ അത് അതുപോലെയാണ് കോളേജ് തലങ്ങളിലാകുമ്പോൾ മാർക്കാണ് ഇപ്പം കൊച്ച് പിള്ളേരുടെ തലത്തിലാകുമ്പോൾ അത്ര വലിയ മാർക്കിൻ്റെ ഇതിൽ വരുന്നില്ല കോളേജ് തലങ്ങളിലോട്ട് നമുക്ക് പ്രവേശനത്തിന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നല്ല നല്ല കോളേജുകൾ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭ്യമാകുക